ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ സ്നാപ്ചാറ്റ് തുടങ്ങിയ ഏറ്റവുമധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനുകളാണ് ഇതിൽ കൂടിയെന്നു വച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുടുംബങ്ങൾ താറുമാറായിട്ടുണ്ട് ഒത്തിരി കുടുംബങ്ങളിൽപ്പെട്ടവർ ഈ റമ്മി കൂട്ടുള്ള ഓൺലൈൻ റമ്മി കൂട്ടുള്ള കളികളിൽ കൂടി ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങളും ഇത് കൂട്ടുള്ള ആപ്ലിക്കേഷനുകൾ വഴി ഒത്തിരി കുടുംബബന്ധങ്ങൾ തകരാറിലാകാനുള്ള കാര്യങ്ങൾ അതായത് പല വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളും പല കോളേജ് സ്കൂൾ ഗ്രൂപ്പുകൾ വഴി പഴയ പഴയ സുഹൃത്തുക്കൾ തമ്മിൽ കൂടുതൽ അടുക്കാനും അതുവഴിയെന്നു വച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരു അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളിലോട്ട് എത്തിച്ചേരാനും അങ്ങനെ കുടുംബബന്ധങ്ങൾ പലതും ശിഥിലമാകാനുമുള്ളൊരു ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് ഇതു കൂട്ടുള്ള ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെയെന്നു വച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ലഹരിയുടെയൊക്കെ ഉപയോഗം ഒരുവിധം വർദ്ധിപ്പിക്കുന്നതിൽ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഒത്തിരി സഹായിക്കുന്നുണ്ട് അതു തെറ്റായ ഒരു ഒരു ഒരു മെസ്സേജാണ് പലപ്പോഴും ചെറുപ്പക്കാർക്കിടയിലും ഇത് ഇതു കൂട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ജനതയ്ക്കിടയിൽ ഉണ്ടാക്കുന്നത് അതു കാരണം ഒത്തിരി അധികം സാമൂഹ്യ വിപത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്